ഞങ്ങളുടെ പ്രദേശത്തെ ടൂറിസ്റ്റ് സീസൺ ഏകദേശം ഒരു ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയാണ് വിൻ്റർ സീസൺ ഒരു മഴയുള്ള സീസൺ കഴിഞ്ഞിട്ട് തണുപ്പുള്ള സമയമാണത് ആ സമയത്ത് വളരെയധികം നമ്മുടെ വിദേശികൾക്ക് നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് വളരെയധികം നന്നായിട്ട് പരിസരം എല്ലാ സ്ഥലങ്ങളും ഒക്കെയൊന്ന് കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ് മലനിരകളും ഒക്കെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളം ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരാനായിട്ട് കേരളത്തിലെ ജീവിത രീതികളും അവരുടെ സ്വഭാവങ്ങളും വിദേശികളോടുള്ള ആദിത്യ മര്യാദയും വളരെ നല്ലൊരു ഭക്ഷണ പല തരത്തിലുള്ള ഭക്ഷണങ്ങളും എല്ലാം വിദേശികളെ വളരെയധികം കേരളത്തിലേക്ക് ആകർഷിക്കുന്നതാണ് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം സീസൺ തണുപ്പ് സ്വതകാലങ്ങളിലാണ് മൂന്നാർ വയനാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് കാലത്താണ് വിദേശികൾക്കൊക്കെ വരാനായിട്ട് നല്ലത് വളരെയധികം നല്ല സ്ഥലങ്ങൾ ഭൂപ്രകൃതി ഭൂപ്രകൃതികളും ഒക്കെയുള്ള സ്ഥലമാണ് കേരളം എപ്പോഴും വിദേശികൾക്ക് വളരെ നല്ല നന്നായിട്ട് വന്ന് കാഴ്ച്ചകളൊക്കെ കണ്ടുപോകാനും ഒക്കെ നല്ല സ്ഥലമാണ് പിന്നെ ഹൈറേഞ്ച് പിന്നെ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ നല്ല തേയിലത്തോട്ടങ്ങളും മല ഒക്കെയുണ്ടായിരുന്നു മലനിരകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് കോട മഞ്ഞിറങ്ങുന്ന കാഴ്ച്ചകളക്കെ വളരെയധികം നല്ലതാണ് വിദേശികളെ പൊതുവെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളും അതു തന്നെയാണ് കാലാവസ്ഥ വളരെ നല്ലതാണ് തണുപ്പ് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വളരേയധികം തണുപ്പായിട്ട് വിനോദസഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള തണുപ്പൊന്നും തന്നെയില്ല എന്നാൽ വളരെ നല്ല ഒരു കാലാവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിലെ ഒരുപാട് വളരെയധികം വെള്ളച്ചാട്ടങ്ങളായാലും മലനിരകളായാലും പുഴകളായാലും പിന്നെ കടൽത്തീരങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് നമ്മുടെ കേരള സർക്കാർ നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് വിദേശികൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെയധികം നന്നായിട്ട് വന്ന് ആസ്വാദിച്ച് പോകാവുന്ന രീതിക്കാണ് നമ്മുടെ സർക്കാരെല്ലാ രീതീയിലും അവർക്കു വേണ്ടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് എപ്പോൾ ഏതു സമയത്തും നമ്മുടെ കേരളത്തിലേക്ക് വന്ന് വരാനൊക്കെ വളരെ അധികം ഇഷ്ടമാണ് അത് മാത്രമല്ല നല്ല തണുപ്പ് സമയമാകുമ്പോഴേക്കും ആ നമുക്ക് ചൂടിൻ്റെ കഠിനതകളും വിയർപ്പുകളും അങ്ങനെയൊന്നും ആ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളൊന്നും കൂടാതെ തണുപ്പ് സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ഫാമിലിയുമായിട്ട് വന്ന് ഒന്നിച്ച് സന്തോഷകരമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഒരു തണുപ്പ് കാല സമയം എന്നു പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനുള്ള സമയം എന്നു പറയുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വരെയുള്ള മാസങ്ങളിലാണ് അവർക്ക് വളരെയധികം സന്തോഷകരമായിട്ട് വന്നു പോകാനായാലും നമുക്ക് കേരളത്തിൽ വളരെയധികം നല്ല രീതിയിൽ ബോട്ട് സർവ്വീസുകളായാലും പിന്നെ ഭക്ഷണം പലതരത്തിലുള്ള ഭക്ഷണ രീതികളൊക്കെ രുചികരമായ ഭക്ഷണങ്ങളുമുണ്ട് കേരളത്തിൽ വളരെയധികം ആധിഥേയത്വ മനോഭാവമുള്ള ആൾക്കാരാണ് കേരാളത്തിലുള്ളത് അത് മാത്രമല്ല അത് മാത്രമല്ല ഒരു സുരക്ഷിതമായിട്ട് വന്ന് ടൂർസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും വന്ന് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേരളം കേരളത്തിലുള്ള ജനങ്ങളെല്ലാം വളരേ ആധിഥേയത്വ മര്യാദകളുള്ള ആൾക്കാരാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെയധികം മഴയും ഒക്കെയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒരു ഫെബ്രുവരി വരെ വളരെയധികം നല്ല സമയമാണ് ടൂറിസ്റ്റുകൾക്ക് വരാനും ഒക്കെ വളരെ നല്ല സമയമാണ് പിന്നെ വളരെ മനോഹരമായ സ്ഥല ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് കേരളം